ആ ആ ചേട്ടാ എനിക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽസിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വേണമായിരുന്നു ഞാൻ ഞാൻ സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുന്നത് ദുബായിൽ ആണ് അപ്പം നാട്ടിൽ കേരളത്തിൽ ഞാൻ മലയാളി ആണ് പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും എനിക്ക് അധികം ഒന്നും അറിയില്ല

ആ ഹാ അപ്പം ലീവ് ഒക്കെ ഉണ്ടോ അതെയല്ലേ ആ ഹാ ആ ഹാ ഹാ ആ മലയാള മാസം ചിങ്ങത്തിൽ അല്ലെ

ആ ഹാ അതെ അതെ ആ ഹാ ഓ അങ്ങനെ അപ്പം പിന്നെ അത്തം മുതൽ നമുക്ക് ആഘോഷങ്ങൾ തുടങ്ങും അപ്പം പത്ത് ദിവസമാണ് പൂക്കൾ ഒക്കെ ഇടുക

അതെ അല്ലെ ആ ആ അത് എവിടെയാണ് ആ സ്ഥലങ്ങളൊക്കെ എവിടെയാണ് അതെ അപ്പം ഈ കാളക്കൂത്ത് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലൊ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പല അമ്മയൊക്കെ വീട്ടിൽ അമ്മൂമ്മ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്

അതെ ആ ഹാ

അത് ഏതു മാസത്തിലാണ് വരിക ഇംഗ്ലീഷ് മാസം ആ ആ സമയത്ത് എന്തായാലും ഒരു തവണ വരണം കാണാനൊക്കെ പുലിക്കളി ആ ഹാ

ആ ആ അതെ ആ ഒരു തവണ എന്തായാലും ആ ടൈമിൽ ഞാൻ ചേട്ടനെ എന്തായാലും കോൺടാക്ട് ചെയ്യാം ആ ഓ ഹോ ഹോ അപ്പം കേരളത്തിൻ്റ വലിയ ഫെസ്റ്റിവൽ തന്നെ ആണല്ലെ അതെ അതെ ഓണത്തിന് എന്തായാലും ഒരു തവണ വരുന്നുണ്ട് ഞാൻ കോൺടാക്ട് ചെയ്യാം ആ ഓക്കെ ഓക്കെ